ഹലോ മാളവിക സ്റ്റുഡിയോസ് അല്ലേ ഇത് ഞാൻ ആണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വിളിക്കുവാണേ കഴിഞ്ഞ മാസം ഒരു മാര്യേജ് ഫംഗ്ഷന് വന്നില്ലായിരുന്നോ ഫോട്ടോ എടുക്കാന് ആ കസ്റ്റമർ ആണ് അനീറ്റ എന്താണ് എന്റെ ഫോട്ടോ ആല്ബം ഇതൊന്നും കിട്ടിയില്ല ഇതുവരെ ഇത് കുറേ ആയല്ലോ ഞാന് കഴിഞ്ഞ മാസവും വിളിച്ചപ്പം പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് തരാം എന്നായിരുന്നു പെട്ടെന്ന് തന്നെ തരാം എന്നാണ് ഇതുവരെ കിട്ടിയില്ല മാഡം കല്യാണ എനിക്ക് ഒന്ന് പെട്ടെന്ന് തരുമായിരുന്നെങ്കിൽ വളരെ ഉപകാരം ആയിരുന്നു എനിക്കിനി ദുബായ്ക്ക് പോവണം നെക്സ്റ്റ് വീക്ക് എനിക്ക് ദുബായ്ക്ക് പോവണം അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ആല്ബം എന്തിയേ എന്ന് എല്ലാവരും ചോദിക്കുന്നു അപ്പം എനിക്കൊന്ന് കാണിച്ചിട്ട് വേണം എനിക്ക് അതും കൊണ്ട് അങ്ങ് ദുബായ്ക്ക് പോവാന് വേണ്ടി ഈ വീ ഒരു ട്വന്റി സിക്സ്ത്ത് ആവുമ്പോഴത്തേനും ഞാന് പോകും എനിക്ക് ട്വന്റി ഫോറിനെങ്കിലും തരണം ഞാന് എന്നിട്ട് ട്വന്റി ഫിഫ്ത്ത് ആകുമ്പോഴത്തേന് ഹസ്ബന്ഡിന്റെ വീട്ടില് നിന്നുമാണ് ഞാന് പോകുന്നത് അപ്പം പോയാൽ പിന്നെ തിരിച്ച് ഞാന് അവിടുന്നാണ് പോവുന്നത് എയര്പോര്ട്ടിലേക്ക് അപ്പോൾ എനിക്ക് ഒരു ട്വന്റി ഫോര് ആവുമ്പോഴത്തേന് തരുമോ ആ മതി മതി എന്ന് കൊണ്ടുത്തരും ഇരുപത്തി നാലാം തീയതി വീട്ടിലോട്ട് കൊണ്ടുതരുമോ അതോ ഞാൻ അങ്ങോട്ട് വരണോ രാവിലെ ആവുമ്പോഴത്തേന് കൊണ്ടുതരുമോ പ്ലീസ്

നോക്കിയിട്ടില്ല നിങ്ങൾ ഇപ്പോഴേ കണ്ഫേം പറഞ്ഞാലേ ഞങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാന് പറ്റൂ നേ ഓക്കെ അപ്പം സി ഡി ആല്ബവും കാണില്ലേ ആ അപ്പോൾ രണ്ടും ഉറപ്പായിട്ടും കിട്ടുമല്ലോ ആ ഓക്കെ ഞാന് പറഞ്ഞതുപോലെ തന്നെ ഉള്ള രീതി വര്ക്ക് ചെയ്യണേ ഞാനത് പറഞ്ഞതൊക്കെ ഓര്മ്മ ഉണ്ടല്ലോ ആ വര്ക്കിങ്ങ് ഒക്കെ നല്ല എല്ലാം നല്ലതായിട്ട് ചെയ്യണം ധൃതി കൂട്ടി കുളം ആക്കരുതേ ഓക്കെ നിങ്ങൾ അത് ഇത്രയും ലാഗ് വരുത്തിയതുകൊണ്ടാണ് ഞാന് വിളിച്ചത് ഞാന് ഈ യിടെ ഒക്കെ വിളിച്ചപ്പോഴൊന്നും നിങ്ങൾ എടുത്തുമില്ല ഫോണ് അപ്പം ഒന്നാമത് പേടിച്ച് ഞാൻ ഇവിടെ എനിക്ക് ഇത്തിരി തിരക്കും ഉണ്ടേ ഞാൻ ആരാണ് ഞാൻ ആരാണെന്നൊക്കെ മനസ്സിലായല്ലോ

പിന്ന ഓക്കെ ശരി അപ്പോൾ ഇരുപത്തിനാലാം തീയതി മറക്കല്ലേ